ഇപ്പം നമ്മൾ ഒരു ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സഥലങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് ഇപ്പം ജസ്റ്റ് ഒരു കോസ്റ്റ്യൂം ഒരൂ ഒരു ട്രഡീഷണൽ കോസ്റ്റൂം ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ വയലിലേക്ക് അതുപോലെ തന്നെ ട്രേഡിഷണാലായുള്ള കാര്യങ്ങളിലേക്ക് പോവാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഒരൂ ഫാഷനബിൾ ഡ്രസ്സാണ് ഇട്ടേക്കുന്നതെങ്കിൽ അതുപോലുള്ള സിറ്റി കൺട്രീസുകൾ അങ്ങനൊക്കെയാണ് പോകാറുള്ളത് ഞാൻ ഇപ്പം പോയിട്ടുള്ളത് വച്ചാൽ തിരുനെൽ നല്ല ഒരു ബ്യൂട്ടിഫുൾ വൈൽഡ് ഏരിയ ആണ് അതുപോലെ തന്നെ തിരുനൽ ടെമ്പിളിലൊക്കെ നല്ല അടിപ്പൊളിയായിട്ട് നമ്മൾക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും നല്ല ഒരു ആമ്പിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാടെന്ന് വച്ചു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് ആയാലും അപ്പം നമുക്ക് അതുപോലെ തന്നെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം എനിക്ക് പോവാൻ ഒരു ആഗ്രഹമുള്ളത് യൂറോപ്പ്യൻ കൺട്രീസിൽ പോയി ഫോട്ടോ എടുക്കണം ഒരു ആഗ്രഹമുണ്ട് ന്ന് വെച്ചാല് മഞ്ഞും കാര്യങ്ങളും അതേപോലെ തന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ക്ലൈമറ്റിൽ ഒരു ഫോട്ടോസൂം കൂടെ എടുക്കാൻ താല്പര്യമുണ്ട് യൂറോപ്പ്യൻ കൺട്രീസിൽ പോകണം എന്നാണ് താല്പര്യം ബാക്കി ഓൾമോസ് നമ്മൾ വയനാടും അതുപോലെ തന്നെയുള്ള ഈ കേരളം ഒട്ടാകെയുള്ള ജില്ലകളിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഫോട്ടോ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കപ്പൽ അതുപോലെ തന്നെ ട്രെയിൻ ആയിക്കോട്ടെ ബസ്സ് ഓട്ടോറിക്ഷ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള പർട്ടിക്കുലർ സ്പോട്ടൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഫോട്ടൊ എടുക്കാറുണ്ട്